കരകൗശലം അല്ലെങ്കില് മൺപാത്ര നിർമ്മാണം മരപ്പണി തുടങ്ങിയ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ജോലി ചെയ്യുന്നവര് വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു കാരണം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു തരത്തിലും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതൊക്കെ ഓരോ കുലത്തൊഴിൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് തലമുറകള് തലമുറകളായിട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം ആശാരിപ്പണിയൊക്കെ അവരുടേതായ രീതിയില് ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവാണ് കാരണം നമ്മള് ഒരു നമ്മുടെ മേശയോ കസേരയോ ഉണ്ടാക്കുന്ന ഒരു ചിലപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടുന്നതുണ്ട് അതൊക്കെ പുതിയ പുതിയ മെഷീനുകൾ വെച്ച് ഉപയോഗിക്കുന്നതാണ് കൈ കൊണ്ടുതന്നെ ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവാണ് പിന്നെ അതുമാത്രമല്ല മൺപാത്ര നിർമ്മാണം ഇതൊക്കെ കുലത്തൊഴിലുകളായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കല കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് കലകളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പരമ്പരാഗതമായ കലകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാര് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരൊക്കെ വളരെ കഷ്ടങ്ങള് സഹിച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവര് വിചാരിക്കും നമ്മള് സഹിച്ച കഷ്ടങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് സഹിക്കാൻ ഇടവരുത്തരുതെന്ന് അവര് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് വരാതെ അവര് നല്ല നല്ല ജോലികളിലേക്കും അവര് വഴിതിരിച്ചു വിടുന്നു അതുകൊണ്ടുതന്നെ ഈ തൊഴിലുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാര് വളരെ കുറവാണ് ഒരു പണ്ട് നമ്മുടെ നാട്ടില് മുക്കിനും മൂലയിലും ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം അന്യം നിന്ന് മ്യൂസിയത്തിലൊക്കെ കയറേണ്ട അവസ്ഥയാണ് വരുന്നത്